ഞങ്ങളുടെ ഗ്രാമത്തിലെ വിവാഹങ്ങൾ സാധാരണയായി നടക്കുന്നത് വധുവിൻ്റെ വീട്ടിൽ വെച്ചാണ് വരനും വീട്ടുകാരും വധുവിൻ്റെ വീട്ടിലേക്ക് വന്ന് അവിടെ വെച്ചായിരിക്കും വിവാഹം നടത്തുന്നത് താലികെട്ടും മറ്റാചാരങ്ങളും നടത്തുന്നത് വധുവിൻ്റെ വീട്ടിൽ വെച്ചാണ് ഇത്തരത്തിൽ വിവാഹത്തിന് തയ്യാറെടുക്കുന്ന രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച നടത്തുന്നത് വിവാഹ നിശ്ചയം എന്ന ആചാരത്തിലാണ് അതായത് അത് വിവാഹ വിവാഹ നിശ്ചയിക്കുന്നതിന് വേണ്ടീട്ട് വരനും വീട്ടുകാരും വധുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു വധുവിൻ്റെ വീട്ടിൽ വെച്ച് വിവാഹ നിശ്ചയം നടത്തുന്നു വിവാഹ നിശ്ചയ ചടങ്ങിൽ വധു വരനും വരൻ വധുവിനും മോതിരം മാറി വിവാഹം നിശ്ചയിക്കുന്നു ഇതേ അവസരത്തിൽ വരൻ്റെ വീട്ടുകാർ വധുവിന് ആഭരണങ്ങൾ അണിയിച്ച് ആചാരം നടത്തുന്നു